കുട്ടിക്കാലത്ത് കുറേ സ്ഥലങ്ങൾ പോയിട്ടുണ്ട് ചിലതൊന്നും എനിക്ക് ഓർമ്മയില്ല പിന്നെ പോയിട്ടുള്ളത് സ്കൂള്ന് നിന്ന് നമ്മൾ ഒരുപാ ടൂറ് പോയിട്ടുണ്ട് പാര്ക്കിൽ വിസ്മയ പാര്ക്കിൽ പോയിട്ടുണ്ട് പിന്ന അമ്പലങ്ങളിൽ ഒക്കെ നമ്മൾ പോയിട്ടുണ്ട് അങ്ങനെ കുറച്ച് സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് അതേപോലെ കോളേജിനും ടൂറൊക്കെ പോയിട്ടുണ്ട് ഹൗസ് ബോട്ട് വയനാട് അടുത്ത് കുറേ ടെമ്പിള് അങ്ങനെ ഒക്കെ അപ്പോൾ കുട്ടിക്കാലത്ത് പോയ ആ സ്കൂള് സ്കൂളില് നിന്ന് പോയതെന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ആ ഒരു പ്രായത്തിൽ നമ്മൾ വെള്ളം വിസ്മയ പാര്ക്കിലെല്ലാം പോയിട്ട് വെള്ളത്തിലെല്ലാം കളിച്ചു പിന്നെ ബസ്സിലൊക്കെ പോവുമ്പോൾ ആ സ്ഥലത്തിലേക്ക് നമ്മൾ ബസ്സിലായിരുന്നു യാത്ര ചെയ്തത് അപ്പോൾ ബസ്സിൽ പോകുന്ന സമയത്ത് പാട്ടൊക്കെ പാടിയിട്ടാണ് പോയത് പക്ഷെ അന്ന് നമ്മൾ ക്ലാസ് ടീച്ചറൊക്കെ ഉണ്ടായിരുന്നു ഒരു ഒരു മാഷ് അപ്പോൾ ആ മാഷ് ഒരു പാട്ടൊക്കെയാണ് പാടിയത് അത് പാട്ട് എനിക്ക് ഓർമ്മയില്ല പക്ഷെ നല്ല രസമായിരുന്നു കുറേ കുട്ടികള് ഉണ്ടായിരുന്നു നമ്മൾ രണ്ട് ബാച്ചിലെ കുട്ടികളായിരുന്നു നല്ലൊരു എന്താണ് പറയുക ഒരു നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു പക്ഷേ ആ കാലത്ത് പിന്നെ കെസ്റ്റ് ഇങ്ങനെ ടൂറൊക്കെ പോകുമ്പോഴേക്ക് വീട്ടിലും ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ പോയി പിന്നെ എന്താണ് പറയുക നല്ല നല്ല എന്ജോയിമെൻ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ ടെമ്പില്ല് പോയിട്ടുണ്ട് ടെമ്പിളിലൊക്കെ പോയ പാട് ഓരോ സ്ഥലത്തും ഓരോ രീതിയാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഒരുപാട് ആസ്വദിച്ചു നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫാമിലിൻ്റെ എന്ന് വച്ചാൽ പോവുന്നതും ഫ്രണ്ട്സിൻ്റെ ഒന്നിച്ചിട്ട് പോവുന്നതും അത് ഒരുപാട് വ്യത്യാസമാണ് അപ്പോൾ ആ ഒരു എന്താണ് പറയുക നമുക്ക് എന്ജോയിമെന്റിന്റെ രീതിയും ഒരുപാട് മാറ്റമാണ് ഫാമിലിൻ്റെ ഒന്നിച്ചിട്ടാവുമ്പോൾ നമുക്ക് ഒരിക്കലും അടിച്ച് പൊളിക്കാന് പറ്റും പക്ഷെ ഒരു ഫ്രണ്ട്സിന്റെ ഒന്നിച്ചിട്ടുള്ള ഒരു ആ ഒരു എന്ജോയിമെന്റും നമുക്ക് കിട്ടില്ല അപ്പോൾ അതെല്ലാം നല്ല ഒരു നല്ല ഒരു കമ്പനി അങ്ങനെ ഒക്കെ ആയിരുന്നു ഒരു റ്റു ത്രീ ഡേയ്സ് ഈ ടൂറൊക്കെയായിരുന്നു ബാംഗ്ലൂറൊക്കെ പോയിരുന്നു വൃന്ദാവൻ ഗാര്ഡന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയിരുന്നു വയനാടിന്റെ അവിടെ പോയിരുന്നു ഇപ്പോൾ പോയ പാ ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമില് വീണ്ടും ഒന്നും കൂടി നമുക്ക് അങ്ങനെ ഒരു ഒരു പ്രായം തിരിച്ച് കിട്ടണം എന്ന് നമ്മള് ആഗ്രഹിക്കുന്നു നല്ല ഒരു നമുക്ക് ഒരിക്കലും മറക്കാന് പറ്റാത്ത ഒരു ഒരു ഒരു നിമിഷമായിരുന്നു അത് കാരണം അത്രക്കും അത് പറഞ്ഞ് അറിയിക്കാന് പറ്റില്ല എന്ജോയിമെന്റ് പിന്നെ നമുക്ക് ഒരുപാട് എന്നാണ് പറയുക നമ്മൾ നമുക്ക് ടൂറിനു പോവാനും പൈസ വേണം അപ്പം അതും കിട്ടും പിന്നെ പോക്കറ്റ് മണിയായിട്ട് തരുമല്ലൊ വീട്ടിൽ നിന്ന് അപ്പോൾ ചോക്ക്ളേറ്റും കാര്യങ്ങളും അതൊക്കെ പോയി വാങ്ങിക്കും ഫുഡും കാര്യങ്ങൾ അപ്പോൾ ആ പോയിട്ട് വാങ്ങിച്ചിട്ട് കഴിക്കുന്ന ഒരു ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് പിന്നെ വെള്ളത്തിൽ കുട്ടികൾ ഒന്നിച്ചിട്ട് എൻജോയ് ചെയ്യുന്നത് വെള്ളത്തിൽ കളിക്കുന്നത് വീട്ടിൽ വീട്ടിൽ നിന്നു നമ്മൾ ഒരു ടൂറ് പോവുമ്പോള് നമുക്ക് ശരിക്കും പറഞ്ഞാല് അച്ഛനും അമ്മയും ആയോണ്ട് ഒന്നിച്ചിട്ടുള്ള പോയാൽ പോകുമ്പോൾ ആ ഒരു ഫ്രീഡം കിട്ടില്ല കാരണം ഈ വെള്ളത്തിലെല്ലാം ഇറങ്ങുമ്പോൾ അവർ എപ്പോഴും നമ്മളെ ശ്രദ്ധിച്ച് കൊണ്ട് ഉണ്ടാവും അത് എന്തെങ്കിലും ഒരു കാര്യത്തില് നമ്മൾ ചെയ്യുമ്പോൾ അത് ചെയ്യണ്ട ചെയ്യണ്ട എന്ന് പറയും അവർക്ക് ഭയങ്കര പേടി ഒക്കെ ആയിരിക്കും പക്ഷെ എന്നാൽ സ്കൂളിൽ നിന്നാണെങ്കിൽ നമ്മൾ എന്ജോയ് ചെയ്യാന് വേണ്ടിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അവർ ഒന്നും പറയില്ല എന്തിലാണെങ്കിലും ഇപ്പം ഇത് വിസ്മയിൽ ഒക്കെ നമ്മൾ പോയപാട് നമുക്കെല്ലാ വെള്ളത്തിലും ആ മറ്റെ ഇതിലൊക്കെ പോയിട്ട് എന്ജോയ് ചെയ്യാൻ ഫുള് പെര്മിഷൻ ആണ് കാരണം ഒന്നും പറയില്ല അവരൊക്കെ സമ്മതിച്ച് അവരൊക്കെ നോക്കി നിൽക്കും ടീച്ചേർസ് ഒക്കെ മാഷൊക്കെ ആണെങ്കിൽ അവർ ഉണ്ട് നമ്മളൊന്നിച്ചിട്ട് ടീച്ചേസ് പിന്നെ അവർ വരില്ലല്ലോ അവർ നിന്ന് നോക്കും അവിടെ ഇപ്പോൾ നമ്മുടെ ഗോൾഡും കാര്യങ്ങളും എല്ലാം അവരെ കൈയ്യിൽ നമ്മൾ ഊരി കൊടുക്കും എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കളിക്കും അപ്പോൾ വീട്ടിൽ നി ന്ന് അമ്മക്കൊക്കെ ആണെങ്കിൽ ഭയങ്കര പേടിയായിരിക്കും അങ്ങനെ വെള്ളത്തിലൊക്കെ കളിക്കുന്നത് കണ്ടാൽ വെള്ളം നമ്മുടെ കാതിൻ്റെ അകത്ത് പോവുമോ അല്ലെങ്കിൽ പിന്നെ ജലദോഷം പനി പിടിക്കുമോ അല്ലെങ്കില് വെള്ളത്തിൽ മുങ്ങി മരിക്കുമോ അങ്ങനെയല്ലാം ഒരു പേടിയാണ് അവർക്ക് നമുക്ക് അത് എന്നാണ് പറയുക കൂടുതല് ഫ്രണ്ട്സിനോട് ഒന്നിച്ചിട്ട് പോയപ്പോൾ സ്കൂൾ നിന്ന് പോയപ്പോഴും കൂടുതൽ ആസ്വദിച്ചു നല്ല ത്രില്ലിലായിരുന്നു നമ്മൾ അത് ആസ്വദിച്ചത് കോളേജിലാണെങ്കിലും അതുപോലെ തന്നെ കോളേജിൽ നിന്ന് പോവുമ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് യാത്ര ചെയ്യുമ്പോൾ അതൊരു വേറെ തന്നെയാണ് നമ്മൾ ഇപ്പം കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ടൂറൊക്കെ പോവാറുണ്ട് പക്ഷെ ആ ഒരു ഇത് നമുക്ക് സ്കൂള് ലൈഫിലും കോളേജ് ലൈഫിലും നമുക്ക് കിട്ടില്ല അത് ഒരു അത് രണ്ടും രണ്ടാണ് രണ്ട് എക്സ്പീരിയന്സാണ് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ആ ഒരു ടൈം നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടില്ല ആ ഒരു ചെറിയ കുട്ടിക്കാലം ഒന്നും ഞാൻ ആഗ്രഹിക്കും ശൊ അങ്ങനെ ഒന്നും കൂടി കിട്ടിയിരുന്നെങ്കില് കൂടുതലും കൂടി എന്ജോയ് ചെയ്യാമായിരുന്നുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അത് അത്രത്തോളം നല്ലതായിരുന്നു ആ ഒരു ചെറിയ പ്രായത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കുസൃതികളും ഓരോ കളി തമാശ എന്തൊക്കെയോ അത് അതൊക്കെ നമുക്ക് പറഞ്ഞറിയിക്കാന് പറ്റില്ല ഒരുപാട് മെമ്മറീസ് ആയിട്ട് തന്നെ അത് അവിടെത്തന്നെ നിൽക്കും ആ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ വെള്ളത്തിൽ കളിക്കുന്ന ആ ഒരു കൊച്ച് പ്രായത്തിൽ നമ്മളുടെ ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ പാട്ട് പാടുന്നതും ഡാൻസ് കളിക്കുന്നു പക്ഷെ നമ്മൾക്ക് ഇപ്പം അങ്ങനെയൊന്നും എന്ന പറയുക ഇപ്പോൾ നമ്മൾ വലുതായത് കൊണ്ട് നമുക്കങ്ങനെ ഒന്നും നമുക്ക് ഫ്രീയായിട്ട് നമ്മൾക്ക് ഡാന്സ് ചെയ്യാനോ പാട്ടുപാടാനോ ഒരു ഒരു നാണക്കേടായിരിക്കും കാരണം എല്ലാവരും കാണുമ്പം എന്ത് വിചാരിക്കും എന്നുള്ള ചെറുപ്പത്തിൽ നമുക്ക് അങ്ങനത്തെ നാണക്കേടും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ചെറിയ ഒരു മൈന്ഡല്ലെ നമുക്ക് കുട്ടികളല്ലെ അപ്പോൾ നമ്മൾ ആ ഒരു രീതിയിലല്ലെ നമ്മൾ ചിന്തിക്കൂ അതിനനുസരിച്ചിട്ട് നമ്മള് എന്തൊക്കെയോ കുസൃതികളും എന്തെല്ലോ ഒപ്പിച്ച് വയ്ക്കും അതൊക്കെ ആണ് അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ പിന്നെ അമ്പലങ്ങൾ പിന്നെ പറശ്ശിനി കടവ് പോയിട്ടുണ്ട് ടെമ്പിള് പിന്നെ മൂകാംബിക കൊല്ലൂര് ഇങ്ങനെയെല്ലാം പോയിട്ടുണ്ട് അതൊക്കെ നല്ല ഒരു എന്ജോയിമെൻറ്റാണ് പിന്നെ കര്ണാടകയിൽ ഈ മറ്റെ ബാംഗ്ലൂരിൽ പോയിട്ടുണ്ട് എനിക്ക് അമ്പലത്തിൽ കുറേ ടെമ്പിള് പോയിട്ടുണ്ട് പക്ഷെ അതിന്റെ പേരൊന്നും എനിക്ക് അങ്ങനെ പറയാന് പറ്റുന്നില്ല എടുത്ത് പറയാന് പറ്റുന്നില്ല ഒരു ഒരുപാട് പാലസ് ടിപ്പുവിന്റെ പാലസ് അവിടെയൊക്കെ പോയിട്ടുണ്ട് അവിടുത്തെ ഒരുപാട് എന്ന പറയുക ആ ഒരു ഇത് കാണാനൊക്കെ നല്ല രസമായിരുന്നു പിന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് എല്ലാ സ്ഥലത്തും പോയി ഫോട്ടോസൊക്കെ എടുത്തു വീഡിയോസൊക്കെ എടുത്തു അല്ല ആ സമയത്ത് ഇപ്പം നമ്മളെ അടുത്തെല്ലാം ഇപ്പോഴത്തെ ജനറേഷന്റെ കുട്ടികള്ക്ക് എല്ലാ ഫോണും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എവിടെ പോയാലും കുട്ടികള്ക്ക് പോയിട്ട് ഫോട്ടോ സെൽഫി ഒക്കെ എടുക്കാം പറ്റും പക്ഷെ നമ്മളെ ഒരു ആ ടൈമിൽ നമുക്ക് അങ്ങനെ ഫോട്ടോ സെല്ഫി അങ്ങനെ ഒന്നും ഇല്ല കൈയിൽ ഫോണ് വരെ ഇല്ല അപ്പോൾ മാഷമ്മാര്ക്ക് ആയാലും അതെ ചെറിയ ഒരു ഫോണ് ക്യാമറ സാധാരണ ക്യാമറ പോലും ഇല്ലാത്ത ഫോണായിരിക്കും അവർ അവരെ കൈയ്യിലുണ്ടാവുക അപ്പോൾ അവരെ ഫോണ്ന്ന് പോലും നമുക്ക് ഒരു ഫോട്ടോസൊന്നും എടുക്കാനൊന്നും പറ്റൂല പക്ഷെ പിന്നാ ക്യാമറമാന് അങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ കുറച്ച് ഫോട്ടോസൊക്കെ നമ്മൾ ഇങ്ങനെ പോയപാട് എല്ലാവരും ഒന്നിച്ചിട്ട് മാഷമ്മാരും ടീച്ചേഴ്സും സ്റ്റുഡന്സും അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് ഫോട്ടോസെല്ലാം എടുത്ത് ചില ഫോട്ടോസൊക്കെ നമ്മൾ ഉണ്ട് ഫോണിലൊന്നും അങ്ങനെ എടുക്കാന് പറ്റി ഇപ്പോൾ നമ്മൾ എന്തായാലും ഫുഡ് കഴിക്കുമ്പോൾ വരെ ഒരു സെല്ഫി ഒക്കെയാണ് അതിലെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ആഗ്രഹം ആ സമയത്ത് ഇതേപോലെ ഫോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപാട് ഫോട്ടോസും ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു അങ്ങനെ ആ ഒരു ഒരു ഉണ്ട് ഒരുപാട് ഓര്മ്മകളുണ്ട് പങ്കുവെക്കാൻ പക്ഷെ അതിലൊന്ന് പറയാന് എന്ന് പറയാൻ ഓര്മ കിട്ടുന്നില്ല പോയ സ്ഥലങ്ങളൊന്നും സ്ഥലത്തിന്റെ പേര് ചിലതൊക്കെ ഓര്മ്മയില് ഉണ്ട് പക്ഷെ